ഷാർക് ടാങ്കെന്ന് പറഞ്ഞൊരൂ ടീ വി ഷോ അത് മേയ്ൻലീ കാണപ്പെടുന്നത് മറ്റ് അമേരിക്കൻ അല്ലങ്കിൽ യൂറോപ്പ് യൂറോപ്യനല്ല മൊസ്റ്റലി അമേരിക്കൻ ടെലിവിഷൻ ഷോയിലിതക്കെയാണ് മെയ്നായ്ട്ടോടുന്നത് അപ്പം ഷാക് ടാങ്ക് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് നമ്മുടെ മേയ്ൻലി മറ്റെ നോർത്തിൽ നോർത്തിലോട്ട് പോവാണങ്കിലാണ് ആ ഒരു സൈഡിലോട്ട് ഈ സംഭവമുണ്ട് ഈ ഷാക് ടാങ്കെന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഈ സംഭവം ഈ ടീ വീ ഷോ എന്തുവാന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ അവരുടെതായ ഒരു ഐഡിയയൊള്ളത് അതായത് ബിസ്നസ്സൈഡ്യസുവായിട്ട് പ്രൊഡക്റ്റോ അല്ലങ്കിലൊരു സർവീസുമായിട്ടിത് പ്രെസൻറ്റ് ചെയ്യും അപ്പം ഇത് പ്രെസൻറ്റ് ചെയ്യുന്ന ഈ ജെഡ്ജസിന് ഇത് നാച്ചൊറലായി ഞാൻ പറയുന്നത് അതായത് എനിക്ക് മനസ്സിലാകുന്ന രീതീൽ ഞാൻ ഇത് പറഞ്ഞതാണ് ഇപ്പം ചിലപ്പം തെറ്റാവാം അല്ലങ്കിൽ ശരിയാവാം എനിക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ കണ്ട് അത് ജെസ്റ്റ് ഞാൻ ഒരു മിന്നായം പോലെ ഈ സാധനം കണ്ടൊള്ളു അപ്പം അതുവൊരൈഡ്യ വച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഈ ആൾക്കാർ അതായത് ഈ പാർട്ടിസിപ്പൻസ്സ് അവർ അവർ അവരുടേതായ ഇന്നൊവേറ്റീവായ ഐഡ്യാസ് അല്ലങ്കിൽ ഒരു ബിസ്നസ് സ്റ്റാട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരൈഡ്യാ തരും പ്രോഡക്റ്റല്ലേ ഒരു സർവീസായിരിക്കാം ഈ ഇതെല്ലം ജെഡ്ജസിന് വേണ്ടി പ്രെസെൻറ്റ് ചെയ്യും ഈ അപ്പം ഈ ഐഡ്യാസ് ഭയങ്കര വെറൈറ്റിയാണ് അതായത് നമ്മൾ ചുമ്മാ ജീവിതത്തിൽ അല്ലേ നമ്മൾ കണ്ട് മടുത്ത ടൈപ്പൈഡ്യാസല്ല ഇത് മറ്റാൾക്കാരർ ചിന്തിക്കാത്ത രീതീലൊള്ളോരോ ഐഡ്യാസക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ഇന്ത്യേലുവുണ്ടീ പരിപാടി അപ്പ ഇത് ജെഡ്ജസിൻറ്റെ മുന്നി കാണിച്ചിട്ടിത് ഇത് ജെഡ്ജസിനേ ലൈക്കിത് ത്രിപ്തിയാവ്വാണെങ്കിൽ അല്ലെങ്കിൽ ജെഡ്ജസിത് കണ്ട് അനലൈസ് ചെയ്ത് അവർക്ക് ഇത് ഒരു നല്ലൊരു ബിസ്നെസ്സൈഡ്യാന്ന് തോന്നുവാണെങ്കിൽ അവരത് പ്രമോട്ട് ചെയ്യും അങ്ങനെന്തോ ഒരു സംഭവാ അപ്പം ഇത് കാണുന്നതിന്റെ എന്താ ഗുണോന്ന് വെച്ചാൽ കണ്ടിരിക്കുന്നവർക്ക് ഓരോരോ വെറൈറ്റി രീതികൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മൾ ഇപ്പം ചിന്തിക്കാത്തൊരു രീതികളിൽ വരെ നമ്മൾ ചിന്തിച്ച് പോവും ഇങ്ങനെ ഒരു ബിസിനെസ്സല്ലങ്കിൽ ഇങ്ങനത്തൊരു സർവീസ് ഇങ്ങനത്തൊരു പ്രൊഡക്റ്റ് വിപണീലിറക്കുവാണെങ്കിൽ എങ് എത്ര മാത്രം അത് സക്സെസ്സാവും എന്നുള്ള ഒരു എന്നുള്ള ഐഡ്യാസ്സ് കിട്ടുന്നുണ്ട് അത് കണ്ടാൽ കിട്ടും പിന്നെ വേറേന്ന് വച്ചാൽ ചുമ്മാ വെറുതെ ഇരുന്ന് കാണാം എന്നാ ഒരെൻട്ടേയ്ൻമെൻറ്റ് രീതീൽ അങ്ങനേക്കിരുന്ന് കാണാം പഷേ മേയ്ൻലി ഐഡ്യാസ് നോക്കി പോകുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ടൊരു ഉപകാരം ചെയ്യ്ന്ന ഒരു സംഭവാണ് പിന്നെ വേറൊരു സംഭവമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇത് സ്വാധീനിക്കുന്ന നല്ല രീതീലും ഇത് നല്ല രീതീന്ന് വച്ചാ നല്ല ഐഡ്യാസ് നല്ല എന്താ പറയുന്നത് അങ്ങനത്തെ രീതീ ഒര്പാട് സ്വാധീനിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ നല്ലൈഡ്യാസ്സൊണ്ടാവ് നല്ല ഇപ്പം നമ്മൾ പോലുവങ്ങനെ ചിന്തിച്ച് പോകും കണ്ട് പോമ്പം അയ്ലേ ചെലതക്കെ വെറും പൊട്ട ഐഡ്യാസാരിക്കും അതായത് ഒര് രീതീലും ലൈക് ചുമ്മാ പൈസ ഒപ്പിക്കാനൊള്ള രീതീലൊള്ള ഓരോ സംഭവങ്ങളാരിക്കും പഷേ മറ്റേ ഇന്നൊവേറ്റീവായൊര്പാട് കാര്യങ്ങളൊണ്ട് ഈ ഇന്നൊവേറ്റീവായ ഒരുപാട് ഐഡ്യാസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എക്സാമ്പളൊക്കെ ചോയ്ക്കാമ്പറഞ്ഞാ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എക്സാമ്പിളക്കെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് എനിക്ക് പെട്ടെന്ന് മനസിൽ വരുന്നത് അങ്ങനെ ഒന്നൂല്ല പഷേ മേയ്ൻലി എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പറഞ്ഞല്ലോ ജെസ്റ്റ് ചെറുതായിട്ടൊന്ന് എനിക്കയ്നേപ്പറ്റി അറിയാത്തൊള്ളു വലിയ കാര്യായിട്ടൊന്നുവറിയത്തില്ല ഞാൻ ഇപ്പം ചിലപ്പം പറയുന്നത് തെറ്റാകാൻ വരെ ചാൻസൊണ്ട് അപ്പം എനിക്കറിയുന്ന രീതീലൊക്കെ ഞാൻ മാക്സിമം പറഞ്ഞ് വിട്ടിട്ടൊണ്ട് ഓക്കെ അപ്പയിത്രേവൊള്ളു ഇത് ഇതാണ് ഷാർകെ ടാങ്ക് എന്നാണെൻറ്റെയൊരു എൻറ്റൊരു ഐഡ്യ